ആ അതെ ആ ആ ആ എനിക്ക് മനസ്സിലായി മനസ്സിലായി ആണോ മോൻ ഇപ്പോൾ ലാസ്റ്റ് തലവേദന വന്നത് എന്നാണെന്ന് ഓർമ്മയുണ്ടോ ആണോ മോൻ വല്ലാണ്ട് വെയിലത്തിറങ്ങി നടക്കുക ഇങ്ങനെ തണുത്ത വെള്ളം ഒക്കെ കുടിച്ച് ഇങ്ങനെ തലയൊക്കെ ഇങ്ങനെ നനഞ്ഞിട്ട് ഇങ്ങനെ വെയിലത്ത് ഇറങ്ങുക അങ്ങനെ എന്തെങ്കിലും ചെയ്തായിരുന്നോ ആ മോനെ അതുകൊണ്ടാണിപ്പോൾ മോനിങ്ങനെ തലവേദന നിൽക്കാണ്ട് വരുന്നത് മോന് ഞാൻ തന്ന മരുന്നൊക്കെ കഴിക്കുന്നില്ലേ മരുന്ന് നിർത്തുമ്പോൾ വരുകയാണ് അല്ലേ ആ മോൻ എന്തായാലും ഇപ്പോൾ വെയിലത്ത് അങ്ങനെ നനഞ്ഞിട്ടങ്ങനെ വെയിലത്ത് നിൽക്കുക അങ്ങനെത്തെ കാര്യങ്ങളൊന്നും ഇനിയിപ്പോൾ അങ്ങനെ ചെയ്യേണ്ട ഇനിയിപ്പോൾ ഇന്നിപ്പോൾ പതിനൊന്നാംന്തി ഒരു പതിനാലാംന്തി ഒക്കെ ആകുമ്പോൾ ഒന്ന് ക്ലിനിക്കിലേക്ക് വരിക കേട്ടോ നമുക്കൊന്ന് മരുന്ന് മാറ്റി നോക്കാം ഇപ്പോൾ തന്ന മരുന്നൊക്കെ കറക്റ്റ് ടൈമിന് കഴിക്കുന്നില്ലേ ആ നമുക്കൊന്ന് മരുന്നു മാറ്റി നോക്കാം എന്നിട്ട് നമുക്ക് നോക്കാം ഒന്നുകൂടെ ആ ഉറക്കക്കുറവുണ്ട് അത് ചിലർക്ക് ഉറക്കമാണ് മൈഗ്രേൻ വരാനുള്ള കാരണം ഉറക്കക്കുറവ് ഉറക്കം കുറവ് മോന് ഉറക്കം കുറവുണ്ടോ ഉറക്കമുളച്ചിരിക്കുക ആ ഉറക്കം ഒരു പ്രശ്നം ആണ് ഉറക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഉറക്കം കുറയുമ്പോൾ മൈഗ്രേൻ്റെ തലവേദന വരും അത് എല്ലാവർക്കും അല്ല ചിലർക്കെ അതിൻ്റെ പ്രശ്നം വരുള്ളൂ മ് മോൻ ഉറക്കമുളച്ച് ഇരിക്കലുണ്ട് പിന്നെ സിസ്റ്റം വല്ലാണ്ട് യൂസ് ചെയ്യലുണ്ടോ ഗ്ലാസ് എന്തെങ്കിലും യൂസ് ചെയ്യലുണ്ടായിരുന്നോ ആ ഗ്ലാസ് യൂസ് ചെയ്യൽ കണ്ടിന്യൂ ചെയ്തോളൂ കേട്ടോ പിന്നെ മോൻ എന്തായാലും രണ്ടുദിവസം കഴിയുമ്പോൾ ഒന്ന് ക്ലിനിക്കിലേക്ക് വാ ആ പതിനാലാംന്തി മറക്കരുത് നമുക്കൊന്ന് മരുന്നു മാറ്റി നോക്കാം ഓക്കെ മോനെ ഓക്കെ ശരി